എന്നുമുതലാണ് വരയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അല്ലെങ്കിൽ നാലോ അഞ്ചോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അത്യാവിശ്യം വരയ്കുമായിരുന്നു മുന്നിൽ കാണുന്ന സാധനങ്ങളും അതുമൊക്കെ വരയ്ക്കും അതുപോലെ ഞാന് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പെയിന്റിങ്ങിന് കൂടുമായിരുന്നു എനിക്ക് പെയിന്റ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് പെയിന്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇപ്പോൾ എന്നല്ല എപ്പോഴാണെങ്കിലും ഒരു പെയിന്റും ബ്രഷും ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു എനിക്ക് കളർ ചെയ്യുന്നത് ഇഷ്ടമാണ് ചിത്രം വരച്ച് കളർ ചെയ്യുന്നതും ചിത്രരചന മാത്രമല്ല കളർ ചെയ്യുന്നതും ഇഷ്ടമായിരുന്നു എനിക്ക് അതുപോലെത്തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴ് ഡ്രോയിംഗ് പീരീഡ് എന്നത് വരുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിംഗ് പീരീഡൊക്കെ വരുന്നത് അതുപോലേ പത്തിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പ്ലസ്ടു പഠിക്കുമ്പോഴൊക്കെ ഞാൻ നോട്ട് ബുക്കിൻ്റെ പുറത്ത് ചട്ടയിൽ കാണുന്ന ചില ചിത്രങ്ങൾ വരെ നോട്ടിൻ്റെ ഉള്ളിൽ പകർത്തി വരയ്കുമായിരുന്നു എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ് കലാകാരൻ എന്നു വച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം കാരണം അല്ലെങ്കിൽ എനിക്കൊരു അതിലേക്കൊരു താല്പര്യമുണ്ടായി ചിലർക്ക് ഡാൻസ് പാട്ട് അതിലൊക്കെയാണ് താല്പര്യം ഇത് പക്ഷേ എനിക്ക് എന്നത് ചിത്രരചനയിലാണ് വരുന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ വരയ്കുമായിരുന്നു അത്യാവിശ്യം വരയ്ക്കും പിന്നെ വലുതായി കുറച്ച് ഇപ്പോഴാണ് പിന്നെയും വര കുറഞ്ഞത് എന്നാലും അത്യാവശ്യം ഞാൻ വരയ്ക്കും